നൃത്തം നൃത്തം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നൃത്തം എന്ന് പറയുന്നത് അപ്പം ഡാൻസെന്ന് പറയുമ്പം കുഞ്ഞിലേ വളരെ കുഞ്ഞിലെ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തുള്ളുന്നത് കണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു എന്നെ രണ്ടര വയസ്സിൽ ഇവർ ഡാൻസ് പഠിക്കാൻ കൊണ്ട് വിട്ടു അവിടെ ചെന്നപ്പോൾ അവിടത്തെ ടീച്ചറ് പറഞ്ഞു ഇത്രയും കുഞ്ഞ് കുട്ടിനെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റില്ല മൂന്നര വയസ്സാവുമ്പോൾ കൊണ്ടു വരാൻ പറഞ്ഞു തിരിച്ച് വിട്ടു അങ്ങനെ മൂന്നര വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് ഡാൻസ് പഠിക്കൽ തൊട്ടടുത്ത് തന്നെ ആറന്മുളയിൽ ഒരുപാട് നൃത്ത ക്ലാസ്സുകളുണ്ടായിരുന്നു ടീച്ചേഴ്സുണ്ടായിരുന്നു അങ്ങനെ ചിലങ്ക എന്ന് പറഞ്ഞ നൃത്ത ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് പക്ഷെ പഠിച്ചു എനിക്ക് തോന്നുന്നു ഒരു ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ എന്തോ എത്തുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് സ്കൂള് കഴിഞ്ഞ് എന്നെ ഇതിൻ്റെ യൂണിഫോമും ഇട്ട് അച്ഛൻ കൊണ്ടു പോവായിരുന്നു എന്നിട്ട് അവിടെ അവിടെ ഇരുന്ന് തന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ചിട്ടായിരുന്നു ഡാൻസിന് കയറിക്കൊണ്ടിരുന്നത് അങ്ങനെയിരുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ്റെ ഒരു കാലിന് ഒരു ആക്സിഡൻ്റ് വരുന്നതിലൂടെ എൻ്റെ നൃത്തം അവിടെ ഒന്ന് പോസ് ആയി അത് കഴിഞ്ഞു പിന്നെയും കൊണ്ട് ചേർത്തു പിന്നെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്ന് ഓരോ ക്ലാസ്സുകൾ മാറി മാറി മാറി മാറി പോവേണ്ടി വന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ മൂന്നാമത്തെ വയസ്സ് തൊട്ട് പതിനേഴ് പതിനാറ് പതിനെട്ട് വയസ്സ് വരെ നൃത്തം പഠിച്ചെങ്കിലും പല സ്ഥലങ്ങളിലായിട്ടും പല രീതിയിലുമാണ് പഠിച്ചത് എന്നുള്ളത് കൊണ്ട് അരങ്ങേറ്റം കഴിയാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്നു പറഞ്ഞാൽ അരങ്ങേറ്റം എന്നുള്ളതാണ് അരങ്ങേറ്റം തുടങ്ങി നൃത്തം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഡാൻസ് പഠിച്ചു പക്ഷെ ഒന്നിന്റെയും ഫുൾ ഫുള്ളായി പഠിക്കാൻ പറ്റിയതും ഇല്ല എല്ലാം കുറച്ച് കുറച്ച് പഠിച്ചു പഠിച്ചു പഠിച്ചു പെർഫോം ചെയ്യായിരുന്നു എല്ലാം സ്റ്റേജ് പെർഫോമൻസിലും എല്ലാം കയറുകയായിരുന്നെങ്കിലും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഇത് പഠിച്ചെടുക്കണം അതിൽ ഒരു ഒരു നിലയിൽ എത്തണം എന്നുള്ളത് വളരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹങ്ങളിൽ ഒന്നു അത് പിന്നെ സമയമില്ലാതെയായി പഠിത്തമായി പത്താം ക്ലാസ്സായപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കോളജ് ആയി നൃത്തത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കാൻ ഒരു സമയമില്ലാതെ ആയി പിന്നെ ജോലിക്ക് കയറി അതിന് ശേഷം നൃത്തം എന്നുള്ളത് മറന്നു പോകുമോ എന്ന് ഇരിക്കുമ്പോൾ വല്ലപ്പോഴും നൃത്തം കളിക്കുമെങ്കിലും അതിന് പഠിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ പഠിക്കാനുള്ള സമയം കിട്ടുമോ എന്നുള്ളത് വളരെ സംശയമുണ്ടാക്കുന്ന ഒന്നായിരുന്നു അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിൽ തന്നെയും ജോലിക്കൊക്കെ കയറിക്കഴിഞ്ഞു ആണെങ്കിൽ തന്നെയും നൃത്ത ക്ലാസ്സുകൾക്ക് പോവുക എല്ലാ ആഴ്ചയും രണ്ട് ദിവസമെങ്കിലും പോയി നൃത്തം പഠിക്കുക അരങ്ങേറ്റം കംപ്ലീറ്റ് ചെയ്യുക അത് ഫോളോ ചെയ്യുക പ്രാക്ടിസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഡൈലി പ്രാക്ടിസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴുള്ള ആഗ്രഹങ്ങൾ സ്റ്റേജ് പെർഫോമൻസസ് ചെയ്യുക അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ഇപ്പം ഏതൊരു നൃത്തം പഠിക്കുന്ന ആളുകളുടെയും ആഗ്രഹം പോലെ തന്നെയുള്ള ആഗ്രഹങ്ങളാണ് നൃത്തത്തിനെ പറ്റി ഇപ്പോൾ ഉള്ളത് ലക്ഷ്യങ്ങളെന്ന് പറയാനും അത് തന്നെയാണ് നൃത്തം പഠിച്ച് സ്റ്റേജുകളിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നൃത്തത്തിൽ എൻ്റെ ലക്ഷ്യവും ആയിട്ടുള്ളത്